ഇപ്പം ഇപ്പം ഉള്ള ഒരാഗ്രഹം കാറെടുക്കണം എന്നുള്ളതാണ് കാരണംന്ന് വെച്ചാൽ കാറൊരു വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ചും വയസ്സായ മാതാപിതാക്കൾക്ക് വയസ്സ് കൂടുന്നതിനനുസരിച്ച് അവരുടെ ഗതാഗതത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും ഒക്കെ നമുക്ക് ഒരു കാറ് അത്യാവശ്യാണ് കാര്യംന്ന് വെച്ചാലവർക്ക് അസുഖങ്ങൾ കൂടി നിൽക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അസുഖങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ അതുണ്ടാകുന്നുണ്ട് പെട്ടെന്നൊരു വണ്ടീലേക്ക് പൊക്കത്തിൽ നിൽക്കുന്ന വണ്ടീലേക്ക് അവർക്ക് കയറാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണിപ്പം ഒരു കാറെടുക്കണം എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് വരുന്നത് അതിന് വേണ്ടി എന്ത് ചെയ്തൂന്ന് ചോദിച്ചാലതിന് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളന്വേഷിക്കുന്നുണ്ട് കാറെവിടുന്നെടുക്കണം ഏത് മോഡലെടുക്കണം ഏത് മോഡലെടുത്തലാണ് കൂടുതൽ കാലം നിൽക്കുക കൂടുതൽ മെയിൻറ്റനൻസ് വേണ്ടാത്ത വണ്ടി ഏതാണ് ആ പിന്നെ കാറക്കെയാകുമ്പോൾ നമ്മൾ നോക്കിയെടുത്തില്ലങ്കിൽ അത് പിന്നൊരുപാട് പണിയാകുമല്ലോ ഇപ്പോൾ സെക്കനാൻഡ് എടുത്താൽ തന്നെ അത് നമ്മൾ ഇഷ്യുസൊന്നും ഇല്ലാത്തിടത്ത് നിന്നെടുത്താൽ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ പറ്റിച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ കാറെടുക്കുന്നതിനേക്കാൾ പൈസ ആ വണ്ടിക്കാത്താകും അപ്പോൾ നമ്മൾ ആ എല്ലായിടത്തും തിരക്കുന്നുണ്ട് എവിടുന്നാണ് എടുക്കേണ്ടത് എങ്ങനെ എടുത്താൽ ഒരു നല്ല വണ്ടി പോകും ഇത്ര അല്ലേ ഇ എം ഐ ആയിട്ട് എടുക്കാനാണെങ്കിൽ തന്നെ എത്രവർഷത്തേക്ക് ഇടണം എത്ര വർഷമിട്ടാൽ ഇത് നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ തീരും എന്നുള്ള കാര്യങ്ങളും കൂടി അന്വേഷിക്കുന്നുണ്ട് കാറ് ഒരു അത്യാവശ്യ ഘടകമായത് കൊണ്ട് ഘടകമായതിൻ്റെ കാരണം തന്നെ ആ മാതാപിതാക്കളുടെ ആ അവസ് ഇതാണ് കാരണമെന്ന് വെച്ചാൽ അവർക്ക് സഞ്ചരിക്കാനും അവരുടെ ആവശ്യങ്ങൾക്ക് പോകാനും ഒരു എളുപ്പമുള്ള മാർഗമുണ്ടാവുന്നത് നല്ലതാന്ന് തോന്നിയത് കൊണ്ടാണ് പിന്നീടിപ്പം ഇപ്പം മഴയൊക്കെ ഉള്ളപ്പോൾ മഴയത്ത് പോകാൻ ടു വീലറിൽ പോകാൻ പാടല്ലേ അതുകൊണ്ടും കൂടെയാണ് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ താൽപ്പര്യം